ചെറുകിട ബിസിനസ്സുകളുടെ ഒരു വളർച്ചക്ക് സാങ്കേതിക വിദ്യകൾ വളരെ വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത് കാരണം ചെറുകിട വ്യവസായമാണെങ്കിലും അവിടെ നമ്മളീ ടെക്നോളജീസുപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗ് ടൈം നമുക്ക് ആ കൺസ്യൂം ടൈം കൺസ്യൂമിംഗ് നമുക്ക് വരുന്നില്ല അതുപോലെ തന്നെ കുറച്ച് നമുക്ക് കുറച്ച് ഹ്യൂമൻ റിസോഴ്സസ് നമുക്കുപയോഗിച്ചാൽ മതിയാകും അപ്പം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വലിയൊരു ഇമ്പാക്റ്റിലേക്കു നമുക്കെത്താൻ പറ്റും ഈ സാങ്കേതിക വിദ്യകളുപയോഗിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ചെറുകിട ബിസിനസ്സുകളുടെ വളർച്ചയെ സാങ്കേതിക വിദ്യ വളരെ നന്നായിട്ടു തന്നെ ആ ബാധിക്കുന്നുണ്ടല്ലെങ്കിൽ എഫെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോളൊരു ബിസിനസ്സുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു ബിസിനസ്സുണ്ടെങ്കിൽ അതിൽ ഞാൻ വളരെ അധികം നല്ലൊരിമ്പാക്റ്റാണ് കൊടുക്കാനാഗ്രഹിക്കുന്നത് ടെക്നോളജീസ് കാരണം ടെക്നോളജീസത്രയും നല്ലൊരിമ്പാക്റ്റാണ് ഇപ്പോൾ ചെലുത്തി കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു ബിസിനസ്സുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ടെക്നോളജീസുപയോഗിക്കുന്നത് എ എന്നാണ് ഓ എനിക്കൊരു ബിസിനസ്സുണ്ടെങ്കിൽ ടെക്നോളജീസ് ഉറപ്പായിട്ട് അക്കൗണ്ടിംഗ് കാര്യങ്ങളതു പോലെത്തന്നെ സെയിൽസ് അതിൻ്റെ പ്രൊമോഷൻ അഡ്വർടൈസ്മെൻറ്റ് ഇതിലൊക്കെ ടെക്നോളജീസുപയോഗിക്കുന്നത് വഴിയായിട്ട് എനിക്ക് ഹെല്പ്ഫുള്ളാണ് കുറച്ചും കൂടി ആൾക്കാരിലേക്കെൻ്റെ ബിസിനസ്സിനെ പറ്റി എത്തിക്കാനും കുറച്ചും കൂടതൊരു റീച്ച് ഔട്ടാകാനും

ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ അഡ്വാൻറ്റൈസ്ഡ് ടെക്നോളജീസ് ബിസിനസ്സിൽ കൊണ്ടു വരാൻ ഞാൻ ശ്രമിക്കും അതുകൊണ്ട് നമുക്ക് മിനിമം ടൈമിൽ മാക്സിമം ആ നമ ഔട്ട് പുട്ട് നമുക്ക് കിട്ടാനായിട്ട് അതു വളരെ ഹെല്പ്ഫുള്ളാണ്